സ്പോർട്സ് സ്പോർട്സ് വളരെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻറ്റായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ സ്പോർട്സില്ലാതെ നമ്മൾ ഫിറ്റായിട്ടിരിക്കാം കുറച്ച് പാടാണ് അപ്പം എന്തൊക്കെ സ്പോർട്സ് കളിച്ചാൽ കൂടുതൽ എഫക്റ്റിവായിട്ടിരുന്നത് ചോദിച്ചാൽ അങ്ങനൊന്നൂല്ല നമ്മൾ എത്ര മാത്രം ആക്റ്റീവായിട്ടിരിക്കും ഇരിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ ഏത് കളിയിൽ നമ്മൾ എത്ര മാത്രം ആക്ടിവായിട്ട് കളിക്കാൻ പറ്റുന്നതാണ് നോക്കേണ്ടത് സ്പോർട്സ് നമുക്ക് അത് ഒത്തിരി ബെനിഫിറ്റ് തരാൻ പറ്റും നമ്മുടെ ഹെൽത്ത് ആൻഡ് നമ്മുടെ ഹെൽത്തിനെ കുറച്ച് നല്ലോണം വെക്കാൻ പറ്റും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വൈറ്റമിൻ ഡി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റാ അത് നമ്മളുടെ ഔട്ട്ഡോർ ഗെയിംസ് സ്പോർട്സക്കെ കളിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സൺ ലൈറ്റ് കിട്ടാൻ ചാൻസുണ്ട് അപ്പം കുറച്ച് ടൈപ്സ് ഓഫ് സ്പോർട്സ്ന്ന് പറഞ്ഞാൽ റണ്ണിങ് വോക്കിങ് അല്ലെങ്കിൽ ഫുട്ബോള് ബാസ്കറ്റ് ബോള് ബാഡ്മിൻറ്റന് അതുപോലത്തെ കുറെ ടൈപ്പ് ഓഫ് സ്പോർട്സുണ്ട് നമ്മളുടെ നമ്മൾ ഇഷ്ടമുള്ള സ്പോർട്സ് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ ഒരു ഇതാണ് അപ്പം നമ്മൾ ഏറ്റവും നോക്കണേച്ചാ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് എത്ര മാത്രം ആക്റ്റീവായിട്ട് ആറ് സ്പോർട്ടിൽ കളിക്കാൻ പറ്റുന്നു എന്നാ നോക്കുന്നത് പിന്നെ ഞാൻ കൂടുതൽ കളിക്കുന്നത് ഫുട്ബോളും ബാസ്കറ്റ് ബോൾ ആണെന്ന് പറയാൻ പറ്റും ഞാൻ ഫുട്ബോളിൽ മോ കൂടുതൽ കൺ ബോൾ കൺട്രോൾ നോക്കും അപ്പം ഫുട്ബോള് കളിക്കുമ്പം നമുക്ക് കാലിന്റെ മസിൽസ് കൂടാൻ ചാൻസുണ്ട് പിന്നെ നമുക്ക് നല്ല സ്റ്റാമിന കിട്ടാൻ ചാൻസുണ്ട് അതുപോലെ തന്നെ പാസ് ബാൾ കളിക്കുമ്പോൾ നമുക്ക് നീളം കൂടാൻ ചാൻസുണ്ട് അതുപോലെ നമ്മൾ പറ്റും നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടെന്ന് വെച്ചാൽ സ്പോർട്സ് ഇഷ്ടമല്ലാതെ കളിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ സ്പോർട്സ് കളിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടേ വെച്ചാൽ നമ്മൾ കളിക്കും മുൻപേ സ്ട്രെച്ച് ചെയ്തിട്ട് വേണം കളിക്കാൻ ഞാൻ ഹോസ്റ്റലായോണ്ട് ഫുട്ബോള കൂടുതൽ കളിക്കുന്നത് ബികോസ് അതാണ് എളുപ്പം ഡ്യൂസിലോട്ടിക്ക് മാറാൻ എളുപ്പം അതാണ് പാസ് ബോള് പറയുമ്പോൾ കളിക്കുക മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ സജസ്റ്റേ ചെയ്യുന്ന എല്ലാരോടും കളിക്കാൻ പറ്റുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഫുട്ബോളാ ഇവിടെ കൂടുതൽ ആൾക്കാരും കളിക്കുന്ന ഒരു സ്പോർട്ടാണ് ഫുട്ബോൾ ഇപ്പം നമ്മൾ അങ്ങനെ നോക്കാ നമ്മൾ ഇഷ്ടമുള്ള ഒരു സ്പോർട്സാണ് കളിക്കാൻ എന്നാൽ അത് എഫക്റ്റീവാകത്തുള്ളൂ പിന്നെ ഫുട്ബോൾ വേറെ രീതിൽ നല്ല കാര്യം എന്ന് വെച്ചാൽ സ്റ്റാമിന കൂടാൻ നല്ല ചാൻസാ അപ്പം വേറേ വേറെ സ്പോർട്സും കുറെ ഉണ്ട് അപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യണം സ്പോർട്സ് ചെയ്യാത്തവർക്ക് ഒരു കോമണായിട്ട് കാണാൻ പറ്റുന്നൊരു ഫാക്ടറ് വെച്ചാൽ അവർക്ക് ചിലപ്പം ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും ബികോസ് ലെസ് എമൗണ്ട് ഓഫ് വൈറ്റമിൻ ഡി ആയിരിക്കും അവർക്ക് റിസീവ് ചെയ്യാൻ ബിക്കോസ് ഔട്ട്ഡോർ ഗെയിംസ് ഈ ഫുട്ബോളൊക്കെ കൂടുതൽ സൺ ലൈറ്റിൽ കളിക്കുന്നതാണ് സാധാരണ അപ്പം അത് കളിക്കുമ്പം നമുക്ക് കൂടുതൽ വൈറ്റമിൻ ഡിയും ഇമ്മ്യൂണിറ്റി പവറും കിട്ടാൻ ചാൻസുണ്ട് പിന്നെ ഫുട്ബോൾ കളിക്കുമ്പോൾ സ്പെഷ്യൽ പ്രിക്കോഷൻസ് അല്ലേ മറ്റേ യൂസ് ചെയ്തിട്ട് വേണം കളിക്കാൻ മാത്രോള്ളൂ സ്പോർട്സ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ ജീവിത്തിൽ അത് യങ് യങ് ഏജിൽ വേണം കളിക്കാൻ താങ്ക് യൂ